ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായവും മറ്റ് രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സമ്പ്രദായവും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് നൂതന സാങ്കേതിക വിദ്യയുടെ ഉയർച്ചയാണ് അത് ഉപയോഗിച്ചാണ് മറ്റ് രാജ്യങ്ങളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് ഹൈടെക് ക്ലാസ് റൂമും ലാപ്ടോപ്പും തുടങ്ങി ഒരുപാട് ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള വിദ്യാഭ്യാസമാണ് മറ്റു രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ നമ്മുടെ രാജ്യത്ത് ഈ ഹൈടെക് വിദ്യാഭ്യാസ സമ്പ്രദായം ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ വന്നിട്ടേ ഉള്ളൂ പക്ഷേ ഈ ഹൈടെക് വിദ്യാഭ്യാസം എത്ര തന്നെ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതൊന്നും അറിയാണ്ട് അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് പോലും മനസ്സിലാവാണ്ട് അതിനെ ഒന്നും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കാണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയ്ക്ക് ഉള്ളത് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് പോലും അറിയാണ്ട് ഈ ഹൈടെക് എന്ന് വെറും പേര് മാത്രമേ ഇപ്പോൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിനുള്ളൂ എല്ലാം പഴയപോലെ എല്ലാം പഴയപടി തന്നെയാണ് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ഒരു സാലറി അതായത് പഠിച്ച് ഇറങ്ങി കഴിയുമ്പം നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന സാലറി ഒന്നും ഒരിക്കലും ഇന്ത്യയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടിയ്ക്ക് കിട്ടുന്നില്ല എന്നും സാലറി കൂടുതൽ കിട്ടുന്ന ജോലിക്കേ എല്ലാവരും നോക്കത്തുളളൂ അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ അവർക്ക് നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നതാണ് പഠിച്ചിറങ്ങി അവിടുത്തെ നല്ലപോലെ അവിടെ നിന്ന് തന്നെ സാലറി വാങ്ങിച്ച് ജീവിക്കുന്നതാണ് ഒരുവനെ സംബന്ധിച്ചെടുത്തോളം എപ്പോഴും ബെറ്റർ എന്ന് തോന്നുന്നത് അത് തന്നെയാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എല്ലാവരും മറ്റുള്ള രാജ്യത്ത് പോയി താമസിക്കുന്നതിന് ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് നല്ല ജോലിയും നല്ല പൈസയുമാണ് എന്നാൽ അതൊന്നും പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ ഇന്ത്യക്കാർ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം അവർക്ക് നല്കുകയോ ചെയ്യുന്നില്ല അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ആണ് നമുക്ക് ഇന്ത്യയിലുള്ള പഠനാവസരം വളരെ കുറവാണ് എന്നാൽ മറ്റ് രാജ്യങ്ങളെ വച്ച് നോക്കുമ്പോൾ അവിടുത്തെ പഠനാവസരങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ് ഒരുപാട് പഠനാവസരങ്ങൾ ആണ് അവർ നമുക്ക് നല്കുന്നത് അത് ഓരോ ഏത് പ്രൊഫഷൻ ആണെങ്കിൽ പോലും അതിനനുസരിച്ച് ജോലിയും ജോലി സാധ്യതയും എല്ലാം ഉള്ള ഒരുപാട് അവസരങ്ങൾ പിള്ളേർക്ക് നല്കുന്നത് കൊണ്ടാണ് കൂടുതൽ കുട്ടികൾ അവിടെപ്പോയി പഠിക്കാനും അവിടെ ജോലി ചെയ്യാനും എല്ലാം ആഗ്രഹിക്കുന്നത് ഇതാണ് ഈ മറ്റ് രാജ്യവും ഇന്ത്യയും തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്